തുന്നൽരീതിയിൽ ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളുടെ ഉടുപ്പാണ് ആ ഉടുപ്പ് തയ്ക്കുമ്പോൾ ഫ്രില്ലൊക്കെ വെച്ച് അത് തയ്ച്ച് കഴിയുമ്പോഴുള്ള ആ സന്തോഷം അതാ കുഞ്ഞുങ്ങളെ ഇട്ട് കാണിക്കുമ്പോൾ അവരിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അത് വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിക്കും കാരണം ഞാൻ കട്ട് ചെയ്യുമ്പോഴുമെല്ലാം ദൈവത്തെ ഓർത്താണ് കട്ട് ചെയ്യുന്നത് ദൈവമേ ഇത് നല്ലതാകണേയെന്ന് അവരതിട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഒരുപാടാണ് പിന്നെ ബുദ്ധിമുട്ടേറിയതെന്ന് പറഞ്ഞാൽ ഷർട്ടെന്നെ കൊണ്ട് തയ്ക്കാൻ ഭയങ്കര പാടാണ് അതിൻ്റെ സ്റ്റിപ്പൊക്കെ വെക്കുമ്പോൾ ശരിയാവത്തില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും ഞാനത് തയ്ച്ച് കൊടുക്കുമായിരുന്നു എന്നുവെച്ച് തയ്ച്ചെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ബട്ടണെല്ലാം മുറുക്കി എല്ലാമിട്ട് അവരുമിട്ട് കഴിയുമ്പോൾ അത് സന്തോഷമാണ് കാരണം അതൊരിച്ചിരി പാടായിട്ട് തോന്നുന്നുണ്ട് അത് വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുത്ത് ഞാനത് ചെയ്യുമായിരുന്നു പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കാരണം ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് നൈറ്റി തയ്ക്കും പിന്നെ ചുരിദാറ് ടോപ്പ് പാൻറ് അങ്ങനെയുള്ളതിലൊക്കെ ആയിട്ടാണ് ഷർട്ടൊക്കെ ഒഴിവാക്കി അങ്ങനെ മറ്റുള്ളതെല്ലാം തയ്ക്കാൻ തുടങ്ങി അതിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് തയ്ക്കുമ്പോഴല്ല നമ്മളത് ഇട്ട് കാണുമ്പോൾ വേറൊരു വ്യക്തിക്കത് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ അത് നമ്മൾ ഇട്ട് കാണിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം നന്നായിട്ടൊത്ത് അവർക്ക് നല്ലതായിട്ടിണങ്ങി ആ അവരും പറയും നന്നായിട്ട് ഒത്തല്ലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷം നമുക്ക് ഭയങ്കരമാണ് അതുപോലെത്തന്നെ നമ്മൾക്കും ഈ കുഞ്ഞുങ്ങളുടെ ഫ്രോക്കിടുമ്പോൾ അവരുടെ ആ ചിരിയും അതിട്ടുകഴിയുമ്പോഴുള്ള ആ ചിരി അതുപോലെ കട്ട് തുണികളെല്ലാം മിച്ചം വരുമ്പോൾ ഞാനതവർക്ക് തയ്ച്ച് വെറുതെ കൊടുക്കും അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെറ്റിക്കോട്ടും വെള്ള പുള്ള പെറ്റിക്കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിള്ളാർക്കൊരുപാടിഷ്ടമാണ് എൻ്റെ മകൾക്ക് ഞാൻ ചുരിദാർ ട്ടോപ്പൊക്കെ തയ്ച്ചു കൊടുക്കും പഴയ തുണികളൊക്കെ ഇരിക്കുമ്പോഴും ഈ തയ്ച്ച് തയ്ച്ച് അതവർക്ക് വരുമ്പോൾ അത് ഞാനെടുത്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ ആണേറ്റവും ഇഷ്ടം നമുക്ക് അതായത് ആ ഉടുപ്പിൽ തയ്ക്കാനായിട്ട് നമുക്കൊരുപാട് കാണും കാരണം ഫ്രില്ലൊക്കെ വെച്ച് ചുരുക്കൊക്കെ ഇട്ട് അടിയിലും ഫ്രില്ലൊക്കെ വെച്ച് അതുപോലെത്തന്നെ പാവാടയും ബ്ലൗസും തയ്ക്കും പാവാട പണ്ടത്തെ പാവാടയെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫ്രില്ല് വെച്ച് ഫ്രില്ല് തട്ട് തട്ടുള്ളതായിരുന്നു നല്ല ഭംഗിയായിരുന്നു ബ്ലൗസും അങ്ങനെ ഞാൻ തയ്ച്ചു ഞാനങ്ങനെ ഇനി ഞാൻ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഞാൻ തയ്ച്ചു ഞാൻ സ്വന്തമായിട്ട് സാരി എടുത്തു അതിൽ നിന്നും മിച്ചം വെച്ചു അതുകഴിഞ്ഞൊരു വാച്ചും വാങ്ങിച്ചു അങ്ങനെ ഞാനെൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തയ്യൽ പഠിച്ചത് ചങ്ങനാശ്ശേരിയിലാണ് ചങ്ങനാശ്ശേരി കോപ്റ്റായ്ക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് തയ്യൽ പഠിച്ചത് ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ് ഞങ്ങളെ തയ്യൽ പഠിപ്പിച്ചത് അങ്ങനെ തയ്യൽ പഠിപ്പിച്ചു എന്നെ കെട്ടിച്ച് വിട്ടു വിട്ടു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ തയ്ക്കും എൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ തയ്ച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പുറത്തോട്ടൊക്കെ ഇപ്പം പ്രായമേറിയതുകൊണ്ടും പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കുറച്ച് തയ്ക്കും പിന്നെ അടിക്കാനൊക്കെ തരുന്നതുമെല്ലാം അവർക്കടിച്ച് കൊടുക്കും നമ്മൾ അവർക്ക് കൂലി വാങ്ങിക്കുന്നതല്ല അവർക്ക് നമ്മളൊരു കാര്യം ചെയ്ത് കൊടുത്തല്ലോ എന്നതിലാണെനിക്ക് സന്തോഷം അതുപോലെത്തന്നെ എനിക്കേറ്റവും ഇഷ്ടം അവരുടെ ഉടുപ്പുകൾ തന്നെയാണ് ആ കുഞ്ഞുങ്ങളുടെ ആ ചിരിയും അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്